സ്കൂളുകളിൽ എന്തെങ്കിലും പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വര്ഷത്തില് ആർട്സ് സ്പോർട്സ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വരും അതായത് ആർട്സ് ആണെങ്കില് വിവിധ തരം മത്സരങ്ങള് അതായത് തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് പാട്ട് ലളിത പാട്ടുതന്നെ പലതരം ഉണ്ട് ലളിത ഗാനം മാപ്പിള പാട്ട് അങ്ങനെ ഉള്ള ദേശ ഭക്തി ഗാനം ദേശീയ ഗാനം അങ്ങനെ ഒരുപാട് പാട്ടുകള് ഉണ്ട് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കായിക മത്സരം ഓട്ടം ചാട്ടം മറ്റേ അതായത് ഡിസ്ക് ത്രോ അങ്ങനെ കുറെ ഒരുപാട് അങ്ങനത്തെ ഉണ്ട് റിലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറെ കുട്ടികളെ നമ്മള് ഉപജിലാ സ് ഉപജില്ല അതായത് നല്ല അതായത് നല്ലോണം മികച്ച ഇത് പുലർത്തുന്ന കുട്ടികളെ ഒക്കെ ഉപജില്ലയില് കൊണ്ട് പോകും പിന്നെ അവർക്ക് അതേപോലെ ഉപജില്ലയില് കൊണ്ട് പോകുന്നതിന് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവിടുന്ന് മികച്ച ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജില്ല സംസ്ഥാനം അങ്ങനെ ദേശീയ അതായത് അങ്ങനെ ഉള്ള പോകാനുള്ള കഴിവുള്ള കുട്ടികളെ ആണെങ്കിൽ അവരുടെ അതായത് അവരുടെ ഭാവി തന്നെ വലിയൊരു ഇതാവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അതിനെ വെച്ച് അവർക്ക് പ്രോത്സാഹനം ആയിട്ട് സമ്മാനം സമ്മാനങ്ങള് കാര്യങ്ങള് ഒക്കെ കൊടുക്കും അങ്ങനെ സമ്മാനങ്ങള് കൊടുക്കുമ്പോളാണല്ലോ കുട്ടികൾക്ക് കൂടുതലും പിന്നെയും പിന്നെയും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുക